അതെ അതെ ആ അപ്പ പറഞ്ഞോളൂ എന്താണ് ഇല്ല ശാസ്ത്രീയമായി പഠിച്ചു ഇപ്പം എന്നെ അത് പഠിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പം നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മുടെ അച്ഛനും അപ്പൂപ്പനും എല്ലാവരും ഇങ്ങനെ ചെയ്തു വരുന്നതാണ് അപ്പം അവർക്ക് ഇങ്ങനെ കൈമാറി കൈമാറി വരികയെന്ന് പറഞ്ഞു കേട്ടില്ലേ അങ്ങനത്തെ ഒരു സംഭവമാണ് അങ്ങനെ മാറി മാറി കിട്ടിയതാണ് ഇപ്പം ചെയ്യുന്നുണ്ട് അത്യാവശ്യം മോശം ഇല്ലാണ്ട് ആ എന്നിട്ട് ഇനി വേണ്ടി വരുമായിരിക്കും അല്ലേ ആ അത് നമുക്ക് ഇപ്പം ചെയ്യാൻ ഇപ്പം എന്താണ് ചെയ്യണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞങ്ങൾ ഇപ്പം വർക്കേഴ്സിനെ ഇപ്പം കൊണ്ടു വരണമെന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ പഠിച്ച സെയിം സാധനം അവരെയും കൊണ്ടു കൂടെ പഠിപ്പിച്ചിട്ട് കുറച്ചും കൂടെ ലാർജ് സ്കിൽ പരിപാടി നടത്താനാണ് തീരുമാനിച്ചേക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത്ര ഒരു ഇത്ര ഒരു സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞാൽ മതി നമ്മൾ അത് നോക്കാം ആ ഡിസൈനെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്ക ഇപ്പം ആ ഒരു രീതിയിൽ ജസ്റ്റ് ചുമ്മാ ഒന്ന് വരച്ചു നോക്കാം അത് അല്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ നമ്മളെ ചുമ്മാ മറ്റേ ബുക്കിൽ ചുമ്മാ കുത്തി വരക്കുക എന്ന് പറയില്ലേ ആ ഒരു ആ ഒരു സെറ്റപ്പ് തന്നെ നമ്മൾ ജസ്റ്റ് കുത്തി വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൂഗിളിങ്ങ് ചെയ്യില്ലേ നമ്മൾ എന്തെങ്കിലും ഒരു പടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂലെ അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് പിന്നെ വരയ്ക്കാനുള്ള കഴിവ് മാറി മാറി വന്നു കിട്ടിയത് കൊണ്ട് നമുക്ക് ചെയ്യാം കുഴപ്പമില്ല ആ ടാങ്ക് യു ടാങ്ക് യു ടാങ്ക് യു

എന്തായാലും ഞങ്ങൾ ഇപ്പം ജസ്റ്റ് ചുമ്മാ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നേയുള്ളൂ ഞങ്ങൾ തന്നെ വലിയ ഒരു കമ്പനി ഉണ്ടാക്കാൻ അല്ല ഞങ്ങൾ തന്നെ ഒരു ഷോപ്പ് തുടങ്ങി കൊടുക്കാൻ അങ്ങനത്തെ ഒരു പരിപാടി ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നില്ല ചേട്ടാ അപ്പം എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാനുള്ള ആൾ ഇല്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇന്ന് ഇപ്പം ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഈ ഷോപ്പ് ഓണേഴ്സിന് ഞങ്ങൾ വിതരണം ചെയ്യും പിന്നെ ആ നിങ്ങൾ അത് വിറ്റ് എന്തെങ്കിലും ആയിക്കോ കുഴപ്പം ഇല്ല നമുക്ക് ഇപ്പം അത് തുടങ്ങാനുള്ള ശേഷി ഒന്നും ഇല്ല പക്ഷെ ഇങ്ങനെയൊക്ക ചെയ്തു തരാം അത് കുഴപ്പമൊന്നുമില്ല ആൻ്റിക് പീസ് ആൻ്റിക് പീസെന്ന് പറഞ്ഞത് കുറേ ഇരിപ്പുണ്ട് പക്ഷെ അതെല്ലാം കൊടുക്കാൻ പറ്റുന്നതല്ല കാരണം ആ നമുക്ക് കുറച്ചു കൂടെ ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഉണ്ട് ഉണ്ട് എന്നു പറയുമ്പം ഈ അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ അതിനെ മുമ്പ് തലമുറ സാധനങ്ങളൊക്കെയുണ്ട് അപ്പം നമുക്ക് എല്ലാം കൊടുക്കാനല്ല പക്ഷെ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളും ഉണ്ട്

അയച്ചു തരാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി ആയിക്കോട്ടെ ഇത് ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം ജസ്റ്റ് ചുമ്മാ ലേലം വയ്ക്കലും പരിപാടിയൊന്നുമില്ലല്ലോ ജസ്റ്റ് ചുമ്മാ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടു പോകൽ അങ്ങനത്തെ പരിപാടി ഇല്ലാണ്ട് മറ്റു ആ ചെറിയ ഒരു ഷോപ്പാണ് അല്ലേ അത് ആ ഓക്കെ ഓക്കെ ഏഹ് എന്തോ ആ ഓക്കെ ഓക്കെ ഇനി പറഞ്ഞോ ഓക്കെ ഞാൻ എന്തായാലും എൻ്റെ ഡീറ്റെയ്ൽസും എല്ലാം ഞാൻ അയച്ചു തന്നേക്കാം എന്നിട്ട് ഇനി ഇപ്പം ഷിപ്പിംഗും പരിപാടിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ആയിക്കോട്ടെ ശരി ശരി